ഇന്നത്തെക്കാലത്ത് കാലാവസ്ഥ മാറിക്കൊണ്ടിരിക്കുകയാണ് വേനൽക്കാലത്ത് മഴയും മഴക്കാലത്ത് വെയിലും അങ്ങനെ വ്യത്യസ്തമായ രീതിയിലാണ് മാറിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം വിളകൾക്കായാലും മഴ ലഭിക്കേണ്ട സമയത്ത് ലഭിക്കുന്നില്ല എന്നാൽ വെയിൽ വേണ്ട സമയത്ത് വെയിലും ലഭിക്കുന്നില്ല എല്ലാം രണ്ട് ഘട്ടമായിട്ടാണ് ഇപ്പം മാറി വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം വെയിൽ വേണ്ട സമയത്ത് ഇപ്പം നെല്ലൊക്കെ കൊയ്യാനൊക്കെ ആകുമ്പോഴേക്കും പെട്ടെന്നൊരു മഴയാണ് വേഗം ഒന്ന് മഴ പെയ്ത് പിന്നെ കാലാവസ്ഥ മോശായിട്ട് അതെല്ലാം നഷ്ടപ്പെട്ട് പോകുന്നു സംരക്ഷിക്കാൻ കഴിയുന്നെന്ന് വച്ചാൽ ഇപ്പം മഴയൊക്കെ പെയ്താൽ ഒന്നും തന്നെ ചെയ്യാൻ പറ്റത്തില്ല